വീഡിയോ ഗെയിമുകളെ കുറിച്ച് എനിക്കറിയാം ഇതില് പ്രധാനപ്പെട്ട വീഡിയോ ഗെയിമുകൾ എന്ന് പറയുന്നത് കാർ റേസിംഗ് മിനി മിൾട്ടിയ ലുഡോ തുടങ്ങിയ വീഡിയോ ഗെയിമുകളാണ് ഞാൻ കളിച്ചിട്ടുള്ളത് ഇതില് കാർ റേസിംഗ് വളരെ പ്രിയപ്പെട്ട ഒരു ഗെയിമാണ് ഇത് കളിക്കാൻ വളരെ ത്രില്ലിംഗ് ആണ് അതുപോലെ തന്നെ മിനി മിൾട്ടിയ മിനി മിൾട്ടിയ എന്ന് പറയുന്നത് പരമാവധി എട്ട് പേർക്കെങ്കിലും കളിക്കാൻ പറ്റുന്നതാണ് കൂട്ടുകാരുമൊത്ത് ഒരുമിച്ചിരുന്ന് കളിക്കാവുന്ന ഒരു വി വീഡിയോ ഗെയിമാണ് മിനി മിൾട്ടിയ ഇതും വളരെ ത്രില്ലിംഗ് ആയിട്ട് കളിക്കാൻ പറ്റിയ ആസ്വദിച്ച് കളിയ്ക്കാൻ പറ്റിയ ഒരു വീഡിയോ ഗെയിമാണ് മിനി മിൾട്ടിയ